മത്സ്യ തൊഴിലാളികൾ സമൂഹങ്ങളിലൂടെ ഉത്സവങ്ങൾ ഏതൊക്കെയാണ് എന്നു ചോദിച്ചാൽ മെയ് ഒന്ന് തൊഴിലാളി ദിനം അത് എല്ലാ തൊഴിലാളികളുടെ ബാധിക്കുന്നു മത്സ്യ തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികൾ അങ്ങനെ പലതും പിന്നെ ജല ജല ജലോത്സവം പിന്നെ വള്ളംകളി അങ്ങനെ പലതും പിന്നെ നമ്മുടെ മത്സ്യ തൊഴിലാളികൾ രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ വളരെ അധികം നല്ല ഒരു പ്രവർത്തിയാണ് ചെയ്തത് അവർ ഭയങ്കരം ഒരു ഒരു കേരളത്തിൻ്റെ ഹീറോ ആയി മാറിയിരിക്കുന്നു ആൾക്കാരെ സഹായിച്ചും വസ്ത്രങ്ങൾ കൊടുത്തും അങ്ങനെ പല രീതിയിലാണ് അവരെ സഹായിക്കുന്നത് മത്സ്യ തൊഴിലാളികൾക്ക് നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല അവർ അവർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മീൻ കഴിക്കുന്നത് അവർ ഒരു ഒരു കർഷകരെ പോലെയുള്ള ഒരു ആൾക്കാർ തന്നെയാണ് മത്സ്യ തൊഴിലാളികൾക്ക് ഒരു ഉത്സവമുണ്ടെന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു നല്ല കാര്യമാണ് അവർക്കും വേണമല്ലോ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്